ഫോട്ടോ എടുക്കാനായിട്ട് ഒത്തിരി ദൂരദേശത്തേക്കൊന്നും പോയിട്ടില്ല എങ്കിലും കേരളത്തിന് അകത്ത് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പ്രധാനമായിട്ടും സുഹൃത്തുക്കളോട് ഒന്നിച്ചു പാലക്കാടൻ മേഖലയിൽ പാലക്കാട് അട്ടപ്പാടി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയത് ഒരു പ്രത്യേക അനുഭമായിരുന്നു അതുപോലെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയുടെ ഭാഗമായിട്ട് വർക്ക് എടുക്കാനൊക്കെ പോകുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്താൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് അന്ന് വർഷങ്ങൾക്കു മുമ്പ് ആഗ്രഹിച്ച കുറേ സ്ഥലങ്ങൾ പ്രത്യേകിച്ചു ഒന്ന് ഹിമാലയൻ പ്രദേശങ്ങളായിരുന്നു അവിടേക്ക് അന്ന് പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ പിന്നീട് ഹിമാലയൻ പ്രദേശത്തെ ബദ്രീനാഥ് കേദാർനാഥ് തുങ്കനാഥ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോകാനും മനോഹരമായ കുറേയേറെ ദൃശ്യങ്ങൾ പകർത്താനും സാധിച്ചു അതുപോലെ ഈ മൂന്നാറിൻ്റെയും മറയൂരിൻ്റെയുമൊക്കെ ദൃശ്യഭംഗി അത് വർഷങ്ങൾക്കു മുമ്പ് തന്നെ പകർത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഇടുക്കി ഡാം നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ് എങ്കിൽ പോലും അതിനകത്ത് ഫോട്ടോഗ്രാഫി അനുവദിക്കുന്ന സാഹചര്യം ഇല്ലായിരുന്നു പക്ഷെ വളരെ യാദൃശ്ചികമായിട്ട് അതിൻ്റെ ഡാമിൻ്റെ ഉൾപ്രദേശങ്ങളൊന്നുമില്ല എങ്കിലും

ജലാശയങ്ങൾ എന്നും ഒരു ഹരമായിരുന്നത് കൊണ്ടായിരിക്കാം ആ ചിത്രങ്ങളൊക്കെ ഏറെക്കാലം ഒരു അമൂല്യനിധി പോലെ സൂക്ഷിച്ചു വയ്ക്കുക ഉണ്ടായിട്ടുണ്ട്